വയനാട് ജില്ലയിൽ അല്ല കേരളത്തിൽ മൊത്തമായിട്ട് ബി ജെ പി ഭരണം ഉണ്ട് അതുപോലെതന്നെ മാർക്സിസ്റ്റ് ഭരണം ഉണ്ട് യു ഡി എഫ് ഭരണം ഉണ്ട് അങ്ങനെ മൂന്ന് ഭരണങ്ങൾ ഉണ്ട് ഇപ്പം നമ്മുടെ ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരിൽ ഒ ആർ കേളു ഉണ്ട് അതുപോലെതന്നെ എന്താ പറയുക ഐ സി ബാലകൃഷ്ണൻ ഉണ്ട് ഇവരെല്ലാം എം പിമാരിലേക്ക് എന്നു പറയാം പിന്നെ ഇവരൊക്കെ ജില്ലയ്ക്ക് വേണ്ടി ചെയ്തത് ഒരുപാട് പ്രവർത്തനങ്ങൾ അതുപോലെത്തന്നെ റോഡ് ആയിക്കോട്ടെ ഞങ്ങളുടെ കാട്ടിക്കുളത്തെ സ്കൂളുപോലും ഒന്ന് രണ്ട് മൂന്ന് കോടി രൂപയ്ക്ക് നമ്മളെ ഒ ആർ കേളു ആണ് ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ നല്ല അടിപൊളി ഒരു ഹൈടെക് സ്കൂൾ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട് അതെല്ലാം ഇവരുടെ പ്രവർത്തനം കൊണ്ടുതന്നെയാണ് ഒരുപാട് പേർക്ക് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു പോയപ്പോൾ അവന് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് നാല് ലക്ഷം രൂപയാണ് അവന്റെ വീട്ടിലേക്ക് ധനസഹായമായി ലഭിച്ചിട്ടുള്ളത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് നാല് താലൂക്കുകളാണ് മാനന്തവാടി താലൂക്കും അതുപോലെ തന്നെ വൈത്തിരി ബത്തേരി താലൂക്കുകളാണ് ഉള്ളത് ഇതിൽ എല്ലാത്തിലും എം പിമാരുണ്ട് അവർ നല്ല നല്ല പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് റോഡ് ആയിക്കോട്ടെ വെള്ള സൗകര്യം ആയിക്കോട്ടെ അതുപോലെയുള്ള എല്ലാ സൗകര്യം നിൽക്കുന്നുണ്ട് അതുപോലെത്തന്നെ നമ്മുടെ കളക്ടറ് രേണുരാജ് ആണ് ജില്ല കളക്ടർ നല്ല നല്ല പ്രവർത്തനങ്ങളാണ് കളക്ടറുടെ ഭാഗത്ത് നിന്നുള്ളത് അതേപോലെത്തന്നെ നമ്മുടെ വയനാട് മെഡിക്കൽ കോളേജ് എന്നു പറയാൻ വേണ്ടിയിട്ട് മാനന്തവാടി മെഡിക്കൽ കോളേജ് ഉണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെയും നടക്കുന്നത് എന്താ പറയുക ഒരു നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് അവിടെ കൊടുത്തു വരുന്നു നല്ല ഡോക്ടർമാരുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ച വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ പ്രാദേശിക ഭരണകൂടണത്തിന് രാഷ്ട്രീയത്തിന് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണം പറയാൻ